ഹലോ ആഹ് ഓഹ് താങ്ക് യു താങ്ക് യു ഞാനവിടെ ഒരു സെക്കന്റ് സ്റ്റാന്റേർഡിലേക്കും എൽ കെ ജി സ്റ്റാന്റേർഡിലേക്കും പിന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഒരു പാരന്റ് ആണ് ആഹ് അപ്പം അവിടെ പിന്നെ ഫീസും വൺ ഇയറിലേക്കുള്ള ഫീസും ഡൊണേഷനും കാര്യങ്ങളൊക്കെക്കൂടി ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ ഡോണേഷൻ ഇരുപത്തയ്യായിരം അല്ലേ ആഹ് ആഹ് ഓക്കേ ഓക്കേ

ഫിഫ്റ്റീൻ തൗസന്റ് അല്ലെ ആഹ് യെസ് യെസ് താങ്ക് യു ആഹ് പിന്നെ ഓക്കെ പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഉം ഉം ഉം

ഉച്ചയ്ക്കുള്ള ഫുഡ്ഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഫുഡ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ദെൻ അതിന് എക്സ്ട്ര ഫീസ് ഞങ്ങൾ പിന്നെ ഇത് ഫീസിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിന് എക്സ്ട്ര തരണോ ആഹ് ബസ്സിന്റേയുംകൂടി ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾ ഇതാ ഇവിടെ പിന്നെ എൻ ജി ഒ ക്വോട്ടേഴ്സിൻ്റെ അടുത്താണ് താമസം അപ്പം അങ്ങോട്ടേക്ക് ആഹ് ആഹ് തൗസന്റ് അല്ലെ പിന്നെ ഇൻക്ലൂഡിങ്ങ് ഫുഡ്ഡ് ആന്റ് പിന്നെ വെഹിക്കിൾ അല്ലേ ആഹ് ഓക്കേ ഓക്കേ പിന്നെ നിങ്ങൾ പിന്നെ അഡ്മിഷൻ ക്ലോസ് ആകുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമംബർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ വേറെ സ്കൂൾ നോക്കണോയെന്ന് ഉള്ളത് ഉണ്ട് അപ്പം എന്താണെന്നു വച്ചാൽ പിന്നെ ഞങ്ങളെ അറിയിക്കുക ഓക്കേ ഓക്കേ ആഹ് ഓക്കേ ഓക്കേ താങ്ക് യു